ഹലോ ടീച്ചർ അല്ലേ ആ ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന അനുവിൻ്റെ അമ്മയാണ് അനു പി അനു പി ആ ടീച്ചറെ ഞാൻ വിളിച്ചത് എന്താ വെച്ചാൽ കഴിഞ്ഞ എക്സാമിന് ഓക്ക് ഭയങ്കര കുറവ് മാർക്ക് ഉണ്ടായത് ആ അത് ഇപ്പോൾ ക്ലാസ്സിൽ എല്ലാം എങ്ങനെയാണ് ഓള് ആ ആ അതെ അതെ ആ അത് നമ്മൾക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കല്ല്യാണം ആയത് കൊണ്ടാന്ന് അത്രയും ലീവ് എടുക്കണ്ടി വന്നത് അത് നമ്മൾ പോവുമ്പോൾ ഇപ്പോൾ കുട്ടിയെ ഒറ്റയ്ക്ക് ആക്കീട്ട് പോവാൻ പറ്റൂല്ലല്ലോ അങ്ങനെ കൊണ്ട് പോയത് ആണ്

ആ അതെ അതെ

ഞാൻ ഇപ്പോൾ ഉഴപ്പ് അവൾ ഉഴപ്പാണോയെന്ന് വിചാരിച്ചിട്ടാ ഞാൻ ടീച്ചറെ വിളിച്ചത് ആ ആ ആ ആ അല്ല വീട്ടിൽനിന്ന് പഠിക്കുന്നെല്ലാം ഉണ്ട് അപ്പോൾ മാർക്ക് കുറഞ്ഞിട്ട് ആവുമ്പോൾ ഞാൻ ആ ആ ശരി ടീച്ചറെ എന്നാൽ ശരി ശരി ശരി